സ്പോർട്സ് കളിക്കുന്നതിലൂടെ കുട്ടികൾക്കു ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണെന്നുവച്ചുകഴിഞ്ഞാല് ബേസിക്കലി അവര് നല്ല രീതിക്കു തന്നെ ഫിറ്റായിട്ടിരിക്കും പിന്നേ വളർന്നുവരുന്ന സാഹചര്യത്തില് അവർക്കതു നല്ലൊരു കാര്യമാണ് പിന്നെ ഈ ഫോണും കമ്പ്യൂട്ടറും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നെല്ലാം കുട്ടികള് കുറച്ചുംകൂടി മാറിനില്ക്കും കാരണം ഇപ്പോള് നമ്മള് നോക്കുകയാണെങ്കില് കുഞ്ഞു കുട്ടികളുടെ കയ്യിലേക്കു വരെ മാതാപിതാക്കൾ ഫോണങ്ങു കൊടുക്കുകയാണ് കാരണം അവരൊന്ന് കരയുമ്പോഴോ അല്ലെങ്കില് എന്തെങ്കിലുമൊന്ന് ചെയ്യുമ്പഴത്തേനോ അവർക്ക് ഫോണങ്ങ് കൊടുക്കുകയാണ് കാരണോമാര് അത് ഭയങ്കര ഒരു നല്ല കാര്യമല്ല കാരണം അവർക്ക് അവരുടെ ബ്രെയിനിന് അവര് വളർന്നു വരുന്ന അതിനെയാണ് അതു ബാധിക്കുന്നത് അതു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഭാവിയിലേക്കു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാതാപിതാക്കള് ശ്രദ്ധിച്ച് മുമ്പോട്ടു കൊണ്ടുപോകണമെന്നാണ് എനിക്കു പറയാനുള്ളത് പിന്നെ ഈ സ്പോർട്സും കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോള് സ്കൂളിലാണേലും സ്പോർട്സിലൊക്കെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ഗ്രെയ്സ് മാർക്ക് ലഭിക്കും അത് ഭയങ്കര ഹെല്പ്ഫുള്ളായിരിക്കും അവർക്ക് മുമ്പോട്ടുള്ള പഠനത്തിന് അതു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഇപ്പോള് ഇപ്പോഴൊരു മാർക്ക് കുറവുള്ള കുട്ടിക്ക് മാർക്ക് കൂട്ടിക്കിട്ടുകയെന്നു പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് മാർക്ക് കൂട്ടിക്കിട്ടുക എന്നു പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോള് എല്ലാവരും എന്തേലും തരത്തിലുള്ള സ്പോർട്സിലിപ്പോള് എന്തെങ്കിലും ഗ്രേയ്സ് മാർക്കൊക്ക കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതു വളരെ നല്ലൊരു കാര്യമായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നേ നേട്ടങ്ങൾ ഈ പറഞ്ഞപോലെ ഇതൊക്കെ തന്നെയാണ് അവർക്ക് സമൂഹത്തിൻ്റെ മുമ്പില് കുറച്ച് നല്ല രീതിയില് നടക്കാൻ സാധിക്കും എനിക്കിങ്ങനത്തെയൊരു ഇതു കിട്ടി നല്ല രീതിയിലാർക്കും സാധിക്കും പിന്നേ പിന്നെ ഏറ്റവും മെയിനായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനു സഹായിക്കുന്നൊരു കാര്യമാണ് ഗ്രെയ്സ് മാർക്ക് അതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ എല്ലാവരെയും ഇതിലേക്ക് എത്തിക്കുക എത്തിക്കാൻ സാധിക്കട്ടെ എന്നാണ് മെയിനായിട്ടും പറയാൻ പറ്റുന്നത് കുറേ കുട്ടികളൊക്കെ ആണേങ്കിലിപ്പോള് ഒന്നിലേക്കും ഒരു കാര്യത്തിലേക്കും ഏർപ്പെടാത്ത രീതിയില് കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും വേണ്ട എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന രീതിയിൽ ആയിട്ടുണ്ട് അത് അതിലൊരു മെയിൻ കാരണമാണ് സ്കൂൾ സ്കൂളില് ടീച്ചർമാരൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണതിലെ മെയിനൊരു കാരണം അപ്പോള് കുറച്ചും കൂടിയും ഫോഴ്സൊക്കെ ചെയ്ത് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലേക്കും ഏർപ്പെടുത്താൻ സാധിക്കുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും അവർക്ക് അവരുടെ പഠനത്തിനും അവരുടെ ഭാവിയിലെ ആരോഗ്യത്തിനും മെന്റൽ ഹെൽത്തിനും എല്ലാ കാര്യങ്ങൾക്കും അതു നല്ലതായിരിക്കും അതുകൊണ്ടുതന്നെ എല്ലാ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും കോളേജ് സ്റ്റുഡൻസാണെങ്കിൽ എല്ലാവരും സ്പോർട്സിലേക്ക് ഇറങ്ങട്ടെ എന്ന് എനിക്കു തോന്നുന്നു പിന്നേ ഒരു കാര്യം എന്താണെന്നു വച്ചിട്ടുണ്ടെങ്കില് ചില കുട്ടികൾക്ക് ഈ സ്പോർട്സ് കോട്ടയിൽ വന്ന കുട്ടികളുണ്ട് അപ്പോള് ചില സ്കൂളിലും കോളേജുകളിലെല്ലാം അവർക്ക് മാത്രം മുൻഗണന കൊടുക്കുന്നു എന്നൊരു തോന്നൽ തോന്നിയിട്ടുണ്ട് കാരണം പല കുട്ടികളും ഈ കോച്ചിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും പോവാതെ പക്ഷെ എന്നാൽ അത്യാവശ്യം നല്ല രീതിയില് കളിക്കുന്ന ചില കുട്ടികൾ ചില ഗെയിംസില് ചില കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ചെല്ലുമ്പോൾ അവരെ അതിലേക്ക് എടുക്കാത്തൊരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട് അവര് കോച്ചിങ്ങിനൊന്നും പോവാത്തതുകൊണ്ട് അവരെയൊന്നു കളിപ്പിച്ചുപോലും നോക്കാതെ അവര്ക്കു കളിക്കാൻ അറിയാമോ എന്നു പോലും നോക്കാതെ അവരെ തള്ളിപ്പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത് വളരെ ഒരു മോശം പ്രവൃത്തിയാണ് അതുകൊണ്ടുതന്നെ എല്ലാവരെയും താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ കോച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതു വളരെ നല്ലൊരു കാര്യമായിരിക്കും അത്രയേ ഉള്ളു